ഇപ്പം നമ്മള് നമ്മുടെ ലൈഫില് ഏറ്റവും കൂടുതല് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങള് മാറുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോരോ പ്രശ്നങ്ങള് കാര്യങ്ങള് വരും ഇപ്പോൾ നമ്മള് പഠിക്കുന്ന കാലങ്ങള് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഓ നമുക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പോൾ പഠിത്തം കഴിഞ്ഞ ഉടനെയാണെന്നുണ്ടെങ്കില് നമുക്ക് ഒരു ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മള് കുറെ അധികം ഇൻ്റർവ്യു കാര്യങ്ങള് അറ്റൻഡ് ചെയ്യുകയും അതെപോലെതന്നെ കുറെ അധികം നമ്മളത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മള് ഓരോ കാര്യങ്ങൾക്കുവേണ്ടിയിട്ട് നമ്മൾ നോക്കി നടക്കേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരാണന്നെ ഉണ്ടാകും അപ്പം നമ്മള് ഏറ്റവും കൂടുതല് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യുവാണ് ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒര് ഇഷ്യു അത് തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു ടൈമിങിന് എനിക്ക് പോവാൻ വേണ്ടീ ഇപ്പം ജോലിക്ക് കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ആ സമയത്ത് കുറെ സ്ക്കോപ്പും കാര്യങ്ങളൊന്നും കുറവായിരുന്നു അത്പോലെതന്നെ നല്ലൊരു കമ്പനി സെലക്റ്റ് ചെയ്യാനും അത്പോലെ എവിടെ ചൂസ് ചെയ്യും എങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനെറ്റവും കൂടുതല് ഒരു ഫേസ് ചെയ്ത ഒരിഷ്യു അത് തന്നെയാണ് അപ്പം ഞാ അതിനുവേണ്ടി പിന്നെ ഞാന് നല്ല എന്റെ ഫ്രണ്ട്സിനോടാണേലും എന്റെ സീനിയേഴ്സിനോടും കാര്യങ്ങളോടൊക്കെ എൻക്വയറി ചെയ്ത് നല്ല കമ്പനി കാര്യങ്ങള് നോക്കി നല്ല ഒരു സാലറി പാക്കേജും കാര്യങ്ങളും എവിടെ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞ് എവിടെ എങ്ങനെ കരിയർ ബിൽഡ് ചെയ്യണം ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരിൽ നിന്നും ഓരോ കാര്യങ്ങള് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ടുപ്പോയി കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ലൈഫില് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പെട്ത്ത് വയ്ക്കുമ്പം അത് കുറച്ച് അറിയുന്നവരുടെ അടുത്ത് നിന്നും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മക്ക് കുറച്ചുംകൂടി ബെറ്ററായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവാന്നും നല്ല കമ്പനികള് ഏതാന്ന് ഉള്ളതൊക്കെ നമുക്ക് അറിയാവുന്നാത്ത കാര്യങ്ങള് കുറച്ച് കാര്യങ്ങള് നമ്മള് അവിടുന്നും ഇവിടുന്നും സ്റ്റഡീസ് കാര്യങ്ങള് ചെയ്ത് അതില് ബെറ്ററായ ഓപ്ഷൻസും കാര്യങ്ങളും നമ്മളായിട്ട് ചൂസ് ചെയ്യുകയും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ടുപ്പോയി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിനനുസരിച്ചിട്ടുള്ള ഒര് ലൈഫില് ഓരോ കാര്യങ്ങൾക്കും നമുക്ക് മുന്നോട്ടുപ്പോവാനും കാര്യങ്ങൾക്കൊക്കെ പെട്ടന്ന് പറ്റുകയും നമ്മുടെ കരിയർ തന്നെ ബിൽഡ് ചെയ്തെടുക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഹെ ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യും